ഹലോ ഫുട്വെയർസ് ഫുട്വെയർസ് അല്ലേ ആ ഞാൻ കുറച്ച് ഷൂവിനെ പറ്റിയൊക്കെ അറിയാൻ പ്രൈസിനെ പറ്റി അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു ഏത് മോഡൽ ഷൂസാനു ഉള്ളത് നിങ്ങളുടെ അവിടെ

ഷൂസ് അതിന് റേറ്റൊക്കെ എന്നതാണ് വരുന്നത് ഷൂസിൻ്റെ ആണല്ലേ ഫസ്റ്റ് ക്വാളിറ്റി ആണോ ആ ആണല്ലേ ഷൂസ് മാത്രം ഉള്ളൂ അല്ലേ ലെതർ ആയിട്ടുള്ള ചെരുപ്പുകൾ ചപ്പൽസ് അങ്ങനത്തെ ഒന്നും ഇല്ലേ ആ ആ ഒരു റേറ്റ് വരും അല്ലെ ആ ആ അപ്പോൾ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ബ്രാൻഡ് ഏതാണ് അവിടെ ഉള്ളത് മ്മ് ആണല്ലേ മാഡം നമുക്ക് ഇഷ്ടപ്പെട്ട നിറങ്ങൾ വല്ലതും ഉണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടോ ഉണ്ടല്ലേ ഓ അപ്പോൾ ഏതൊക്കെ കമ്പനി ഷൂസാണ് അവിടെ എടുക്കുന്നത്

നമ്മൾക്ക് ഈ സൈസ് അത് ഇച്ചിരി വലിപ്പം കൂടിയ ലെങ്ത്ത് എല്ലാം ഉള്ള കാലിന് പറ്റിയ ഷൂസുണ്ടോ ഒരൂ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് ആ റേഞ്ചിൽ വരുന്ന ഷൂസിന് ഉള്ള റേ ഇതുണ്ടോ ആ ആണല്ലേ ആ അങ്ങനെ ആണെങ്കിൽ ഒരു പന്ത്രണ്ടിഞ്ച് പതിമൂന്നിഞ്ച് ആണോ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ ആണല്ലേ ആ ആ അപ്പോൾ അയ്യോ അപ്പോൾ അതിൻ്റെ അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെ ആണ് വരുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കുവാണ് എങ്കിൽ അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് ആണല്ലേ നിങ്ങൾ കമ്പനി നിങ്ങളുടെ കമ്പനി തന്നെ സ്വന്തമായിട്ടിങ്ങനെ ചെയ്ത് കൊടുത്ത് വിടുന്നതാണോ ഓ ഓ അങ്ങനെ ആണല്ലെ ഒരു മൂന്ന് നാല് ഷൂ വരുമ്പോൾ ഡിസ്കൗണ്ടിലൊക്കെ തരുമോ നിങ്ങൾ ഹലോ ആ ഈ നമ്പറിലേക്ക് തന്നെ ഒരു ഷൂസും ഇതെല്ലാം ചെയ്ത് തന്നാൽ മതി പിന്നെ ലെതറിൻ്റെ ചെരുപ്പൊക്കെ ഉണ്ടോ പന്ത്രണ്ടിഞ്ച്

ആണല്ലെ ആ ഹാ അപ്പോൾ ഈ ആണോ ഷൂസ് കുഞ്ഞി പിള്ളേർക്കുള്ള ലേഡീസിനൊള്ള ഷൂസ് ഉണ്ടോ ലെതറിൻ്റെ ചെരിപ്പ് ഇഞ്ചൊര് മൂന്ന് നാല് അൻ അല്ല അൻപത് സൈസ് പറയുമ്പോൾ ഒരൂ ബ്ലൂ ഉണ്ടോ ഉണ്ടല്ലേ മ്മ് എല്ലാവർക്കും ബേബീസിനും പ്രായമുള്ളവർക്കും എല്ലാവർക്കും പറ്റിയതാണല്ലേ